ഹലോ ദിസ്ബാഗോ ഹോട്ടൽ അല്ലെ ആ അതെ ഞാൻ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു ഞാൻ ഇവിടെ മാവിലാന്തോട് ടൗണിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ വൈകീട്ട് അഞ്ച് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എട്ടുമണിവരെ ആകുമ്പോഴേക്കും അവർക്ക് ഫുഡ് കൊടുക്കാൻ പാകത്തിന് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റുമോ ആ ഒക്കെ ഒക്കെ എൻ്റെ എനിക്കൊരു ഇരുന്നൂറ്റിയൻപത് ബിരിയാണിയും പിന്നെ ഒരു ഒരു ഇരുപത് പൊറോട്ടയും ഒരു ബീഫ് കറിയും അല്ല അതിന് വേണ്ട ബീഫ് കറിയും അതിനെ വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയായിരുന്നു വേണ്ടത് ആ ഒക്കെ ഒക്കെ ആ നല്ല സ്മൂത്ത് ആൻഡ് ക്രിസ്പിയായിട്ടുള്ള പൊറോട്ട വേണം ട്ടൊ ചേട്ടാ പിന്നെ ബിരിയാണിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രേവി ഉള്ള ബിരിയാണിയായിരുന്നു വേണ്ടത് ആ പൈസ കുഴപ്പമില്ല് എത്രയാണേലും വീ വിൽ പേ ആ ഒക്കെ ഒക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് കറി മതീട്ടൊ ബീഫിന് അത്യാവശ്യം നല്ല സ്പൈസി ആയിക്കോട്ടെ സ്പൈസി ഇഷ്ടമുള്ളവരാണ് ഫ്രണ്ട്സ് ഒക്കെ ഒക്കെ അത്യാവശ്യം ചില്ലി ഫ്ളൈക് സ് ഒക്കെ ഒന്ന് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിവേണം ചൂട് പോവാണ്ട്തന്നെ കൊണ്ടുതരാൻ മാക്സിമം നോക്കണെ ചേട്ടാ എല്ലാവരും അത്യാവശ്യം ചൂട് കഴിക്കുന്നവരാണ് ചൂട് ചൂടുള്ള ഫുഡ് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ചൂട് കഴിക്കാണ്ട് ചൂട് പോകാണ്ട് നേരെത്തെ എത്തിക്കണേ ആ ഒക്കെ ആ ഇത് ഇവിടെ മാവിലാന്തോട് അടുത്താണ് സ്ഥലം ഞാൻ ചേട്ടന് ലൊക്കേഷൻ വാട്സ്ആപ്പ് ചെയ്യാം ആ ഒക്കെ ഒക്കെ ചേട്ടൻ ഇപ്പം അഞ്ചുമണി ഒരു എട്ടുമണി ആകുമ്പതേനും ഫുഡ് ഇവിടെ എത്തിക്കാൻ പറ്റോ അപോഴത്തേനും ഫ്രണ്ട്സിന് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിരുന്നു ആ ഒക്കെ എട്ടുമണി ആകുമ്പോ ഇവിടെ എത്തിക്കണേ ആ ലേറ്റ് ആവരുത് ട്ടോ ആ ചേട്ടൻ മൊത്തം എത്ര രൂപയാണ് വരുന്നത് ആ നോക്കിട്ട് പാറയെന്നാൽ ഒക്കെ ആ ഒക്കെ ഇരുപത്തിനാലായിരം വരോ ആ ഒക്കെ ഏട്ടാ ഇരുപത്തിനാലായിരം ഞാൻ എന്തായാലും ഇത്രേം ഫുഡ് എടുത്തതല്ലേ കുറച്ച് ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടോ കാരണം ഞാൻ അവിടെത്തെ സ്ഥിരം കസ്റ്റമർ ആണ് ഞാൻ അവിടെന്ന് എടക്ക് എടക്ക് ഫുഡ് എടുക്കുന്നതാണ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് ഓക്കെ ആണോ ആ ഒക്കെ അല്ല ഒക്കെ ചേട്ടാ എന്ന ഇരുപത്തിമൂന്ന് പേ ചെയ്താ ഒക്കെ ഒക്കെ താങ്ക്യു